എൻ്റെ ജീവിതലക്ഷ്യം എൻ്റെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിച്ചതും കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ടും ഒക്കെ നല്ല രീതീതന്നെ അവരെ വളത്തികൊണ്ടുവന്ന്

ഇപ്പോഴും അതുപോലെതന്നെയാണ് അവര് വളർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നല്ല സ്വഭാവത്തെയാളൊക്കെ ആയിട്ടാണ് ഇപ്പോഴും വളരുന്നത്